ഒഴിവ് പീരിയഡുകളും ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് വരയ്ക്കാനുള്ള അവസരങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട് പക്ഷേ നമ്മുടെ പഠനങ്ങൾ അതിൻ്റെ വലിയ രീതിയിലേക്ക് ഒരുപാട് ഡിഗ്രി ലെവലുകളൊക്കെ എത്തിയപ്പോൾ വളരെ പ്രയാസമാണ് ഈ ഒരു വരയ്ക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളത്

കൂടെ തന്നെ ചില സമയങ്ങളിൽ ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് ഈ ഒരു വര എന്നുള്ളത് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്

വളരെ നല്ല രീതിയിൽ കൊണ്ടു പോകാൻ സാധിക്കുന്നതാണ് ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് നമ്മുടെ എത്ര പ്രായമായാലും

കാര്യം ഏത് രീതിയിലും വരക്കാനില്ലെങ്കിലും നമ്മുടെ കയ്യിലൊരു പേനയും പേപ്പറോ ഒരു ഒഴിഞ്ഞ പ്രതലം കിട്ടിയാൽ നമ്മൾ

തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മറ്റു പഠ ഇപ്പോൾ എനിക്ക് പഠനമല്ലാതെ മറ്റു